ആ എനിക്കെൻ്റെ മൊബൈലൊന്ന് റീചാർജ് ചെയ്യണേ ഞാനൊരു സ്ഥലം ദൂരത്തേയ്ക്ക് യാത്ര ചെയ്തു വന്നിരിക്കുകയാണ് വളരെ വല്ലാതെ അത്യാവശ്യമായിട്ട് എനിക്ക് ഫോണൊന്ന് റീചാർജ് ചെയ്യണം വീട്ടിലേക്ക് ബന്ധപ്പെടാൻ ഒരു നിർവാഹവുമില്ല ഇപ്പം ആണെങ്കിൽ എസ് ടി ഡി ബൂത്തോ വേറെ സൗകര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പം വീട്ടിലേക്ക് വിളിക്കണം അപ്പോൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂറ്റി എൺപത് ദിവസം വാലിഡിറ്റിയുള്ള ഒരു പ്ലാനാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അടുത്ത് ഡേറ്റ വേണം എന്നില്ല കോള് വിളിക്കാനും മെസ്സേജ് അയക്കാനും പറ്റിയാൽ മതി ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോൺ അധികം ഉപോഗിക്കുന്നില്ല അതുകൊണ്ട് മൊബൈൽ നമ്പറ് മൊബൈൽ നമ്പറ് ഞാൻ പറയാം നയൺ സെവൻ ഫോർ സെവൻ സിക്സ് നയൺ ഫോർ ടു വൺ സെവൻ മലയാളത്തിൽ പറയാം തൊണ്ണൂറ്റേഴ് നാൽപത്തേഴ് അറുപത്തൊമ്പത് നാൽപത്തിരണ്ട് പതിനേഴാണ് എൻ്റെ ഫോൺ നമ്പറ് നൂറ്റി അൻപത് ദിവസത്തേക്ക് വാലിഡിറ്റി കിട്ടുന്ന അൺലിമിറ്റഡ് കോളും മെസ്സേജ് സർവീസും തരുന്ന ഒരു പ്ലാനാണ് എനിക്ക് വേണ്ടത് അത് റീചാർജ് ചെയ്തെടുത്താലാണ് എനിക്ക് വിളിക്കാൻ പറ്റുള്ളു ഇത് എത്രയും വേഗം എനിക്ക് ചെയ്തു കിട്ടണം എനിക്ക് വീട്ടിലേക്ക് അവരോട് എൻ്റെ അവസ്ഥ അവർക്ക് അറിയത്തില്ല എനിക്കിപ്പോൾ ഇൻകമിംഗ് കോളും ലഭിക്കാത്ത അവസ്ഥയിലാണ് അപ്പോൾ അവർ ടെൻഷൻ ആകുന്നുണ്ടാവും എനിക്കപ്പം അത്യാവശ്യമായിട്ട് അവരെ വിളിക്കാനാണ് അപ്പോൾ എത്രയും വേഗം ചെയ്തു കിട്ടിയാൽ അത്രയും നല്ലതാണ് അധികം വൈകാണ്ട് അത് ചെയ്തു കിട്ടാനാണ് എനിക്കിത് ആവശ്യമുള്ളത് പക്ഷേ ഇത് ഫോണ് എടുത്ത് റീചാർജ് ചെയ്യാനൊക്കെ ഞാൻ നോക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഓപ്ഷൻസ് എടുത്തു അതിൽ നിന്ന് ഗൂഗിൾ പേ എടുത്തു അതിൽ നിന്ന് പേയ്മെൻ്റ് ഓപ്ഷൻ എടുത്തു റീചാർജ് എടുത്തു അതൊക്കെയാണ് അങ്ങനെ റീചാർജ് ചെയ്യുമ്പോഴാണ് പല പ്ലാനുകളും കാണുന്നത് പക്ഷേ എനിക്ക് നൂറ്റി എൺപത് ദിവസത്തെ പ്ലാൻ കാണാൻ പറ്റുന്നില്ല അതു തന്നെയല്ല കഴിഞ്ഞ തവണകളിലൊക്കെ ഞാൻ ചെയ്ത റീച്ചാർജ് ചെയ്തതിലും ഒക്കെ ഒരുപാട് തുക കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പം അങ്ങനെയൊരു പ്രശ്നവും ഇതിൻ്റകത്ത് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒരു സഹായം എനിക്ക് ആവശ്യമുണ്ട് കസ്റ്റമർ കെയറിൽ വിളിച്ചു സംസാരിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ വിളിക്കാൻ എനിക്ക് ഇതേ ഒരു ഓപ്ഷനുള്ളു അവരെ എങ്ങനെയെങ്കിലും എനിക്ക് അവരെ ഫോണിൽ അത്യാവശ്യമായിട്ട് കിട്ടണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഫോണുകളൊന്നും ഇത്രയും സുലഭമാകാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിപ്പം എസ് ടി ഡി ബൂത്തുകളുണ്ടായിരുന്നു ഇപ്പോൾ ഈ ആളുകൾക്ക് സ്വന്തം ഫോണ് പൈസ കൊടുത്തിട്ടാണെങ്കിൽപ്പോലും അവർക്ക് വിളിക്കാൻ തരാൻ ഒരു പേടിയാണ് എല്ലാവരും നമ്മൾ മറ്റൊരാളെ വിളിച്ച് അവരെ ഭീഷണിപ്പെടുത്തുമോ പരാതിപ്പെടുമോ ഒക്കെ ചെയ്യുമെന്നൊക്കെ അവർക്ക് പേടിയാണ് ആരും തരുന്നില്ല അപ്പം അത്യാവശ്യമായിട്ട് മൊബൈല് റീചാർജ് ചെയ്ത് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് അഞ്ചോ ആറോ ദിവസത്തെ ഒരു ചെറിയ പ്ലാനാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്തു കിട്ടിയാലേ പറ്റുള്ളൂ സാർ ഇതിനകത്ത് എമർജൻസി സർവീസെന്നുണ്ട് പക്ഷേ അതെനിക്ക് പോലീസിനെയോ അല്ലെങ്കിൽ ഫയർ ഫോർസിനെയൊക്കെയെ വിളിക്കാനല്ലേ പറ്റുള്ളൂ അപ്പം ആ ഒരു സർവീസ് മാത്രമേ ഇപ്പോൾ എൻ്റെ മോൾ ഫോണിൽ കിട്ടുന്നുള്ളൂ വിളിക്കുമ്പോൾ റീചാർജ് ചെയ്യാനാണ് പറയുന്നത് ചില ഫോണുകളിലേക്കൊക്കെ മറ്റേ ലോണായിട്ടൊക്കെ അവർ അഡ്വാൻസായിട്ട് കുറച്ച് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തു തരുന്ന ഒരിത് ഉണ്ടായിരുന്നു അതും എൻ്റെ ആ ലിമിറ്റും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പം റീചാർജ് ചെയ്യാണ്ട് എനിക്ക് ഒട്ടും തന്നെ മുന്നോട്ടു പോകാൻ പറ്റില്ല ഓൺലൈൻ റീചാർജ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം നമ്മുടെ കയ്യിൽ പൈസയായിട്ട് കയ്യിൽ വേണ്ടല്ലോ നമുക്ക് മൊബൈൽ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ അതുപോലെ ഫോൺപേയോ അല്ലെങ്കിൽ ഭാരത്പേയോ ഒക്കെ ഉപയോഗിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് അങ്ങനെ റീചാർജ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്